സ്ത്രീകളോടും നല്ല രീതിയില് തന്നെ പെരുമാറുന്നവരും മര്യാദയും പക്വതയും ഉള്ളവരായിരിക്കണം ടൂറിസ്റ്റുകാർ ഏത് പ്രദേശത്ത് പോകാം എന്ന് പറയുന്നുവോ ആ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തമായും അവരും അറിവുള്ളവരായിരിക്കും അവിടുത്തെ വാടക മുറികളെ പറ്റിയും എല്ലാ കാര്യങ്ങളും അവര് അറിഞ്ഞിരിക്കണം കുട്ടികളോടും സ്ത്രീകളോടും അവര് പെരുമാറേണ്ടത് നല്ല രീതിയില് തന്നെ ആയിരിക്കണം അവർ ഇന്ന് ടൂറിസ്റ്റുകാർ വന്ന് കഴിഞ്ഞാല് അവരുടെ കൂടെ പെരുമാറണം നല്ല രീതിയില് തന്നെ അവരോട് പെരുമാറണം അവര്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവര് നടത്തി കൊടുക്കുകയും ചെയ്യുന്നവരായിരിക്കണം ഒരു പിഴവ് പോലും അവരുടെ ഭാഗത്ത് നിന്ന് വരാതിരിക്കാന് അവര് പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ വണ്ടി എവിടെ നിന്നും വണ്ടി കിട്ടും ഏതെല്ലാം സ്ഥലത്ത് പോയി ആള്ക്കാരെ താമസിപ്പിക്കണം അവരോട് അവര്ക്ക് ഫുഡിന് വേണ്ടുന്ന കാര്യങ്ങളും അവര്ക്ക് കിടന്നുറങ്ങാനുള്ള അക്കൊമഡേഷനുകളും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അവര്ക്ക് പറഞ്ഞ് കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ആത്മധൈര്യവും സംരക്ഷണ സംരംഭ ശേഷിയും അവര്ക്കുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഏത് ഗൈഡുകള് വന്നാലും അവരെ നമ്മുടെ രാജ്യത്തേക്ക് ആകര്ഷിക്കത്തക്ക രീതിയില് അവരോട് പെരുമാറണം അവരോടുള്ള പെരുമാറ്റം വളരെ നല്ല രീതിയില് ആണങ്കില് മാത്രമേ മറ്റുള്ള രാജ്യക്കാർ അതായത് മറ്റുള്ള നമ്മുടെ രാജ്യത്തോട്ട് വരുന്ന ആള്ക്കാർ നമ്മുടെ രാജ്യത്തിനെ സ്വീകരിക്കാന് തയ്യാറാവുകയുളളൂ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ പുറത്ത് നിന്ന് വരുന്ന ടുറിസ്റ്റുകൾ പെരുമാറുവാൻ അറിയാവുന്ന വിധത്തിലുള്ള ആള്ക്കാര് ആയിരിക്കണം നമ്മുടെ ഇടയില് ഉള്ളവർ എങ്കില് മാത്രമേ ആ ഗൈഡിന്റെ കൂടെ ആള്ക്കാര്ക്ക് പോകുവാനുള്ള സന്മനസ്സുണ്ടാവുകയുള്ളൂ എല്ലാ ആള്ക്കരോടും നല്ല മനസ്സോട് കൂടി തന്നെ പെരുമാറനുള്ള കഴിവും ആത്മസംയമനവും ആ ഗൈഡിന് പ്രത്യേകമുണ്ടായിരിക്കണം എങ്കില് മാത്രമേ ഗെയ്ഡുകളെ ആകര്ഷിക്കാന് പറ്റുകയുള്ളൂ ഗെയ്ഡുകള്ക്ക് മറ്റുള്ള വിദേശികളെ ആകര്ഷിക്കണമെങ്കിൽ അവര്ക്ക് തനതായുള്ള രീതിയില് തന്നെയുള്ള പെരുമാറ്റവും സ്വഭാവ ഇതും ഉണ്ടായിരിക്കണം എങ്കില് മാത്രമേ എല്ലാവരും ആ ഗെയ്ഡിനെ ആകര്ഷിക്കുകയുളളൂ അതുപോലെ ക്ഷമയും സത്യസന്ധതയും ഗെയ്ഡിന് ആവശ്യമായുണ്ട് അതുണ്ടെങ്കില് മാത്രമേ ഗെയ്ഡിന് കഴിയുകയുളളൂ ഇങ്ങനെയെങ്കിൽ മാത്രമേ ഗെയ്ഡിന് ഗെയ്ഡ് ആയിയിരിക്കാന് സാധിക്കുകയുളളൂ ആയതിനാല് ഒരു നല്ല ഗെയ്ഡിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം നിര്ബന്ധമുള്ള കാര്യമാണ് ഏത് സ്ഥലത്താണോ ഗെയ്ഡ് ആയി പോകുന്നത് ഏത് ആരുടെ കൂടെ പോകുന്നുവോ അവർ നല്ല രീതിയില് തന്നെ പരിപാലിക്കുകയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ഗെയ്ഡിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിതത്തില് നിന്ന് കൊണ്ട് തന്നെ ഗെയ്ഡ് എല്ലാ കാര്യങ്ങളും അവര്ക്ക് സാധിച്ചു കൊടുക്കണം എങ്കില് മാത്രമേ ആ ഗെയ്ഡ് ഗെയ്ടിനായിട്ടുള്ള കാര്യങ്ങള് സാധിച്ചു കൊടുത്തെങ്കില് മാത്രമേ നമ്മളെ നാട്ടിൽ മറ്റുള്ള പുറത്ത് നിന്ന് ടൂറിസ്റ്റ്കാര്ക്ക് സത്യസന്ധമായി നിന്ന് നിന്ന് പോവാന് സാധിക്കുകയുള്ളൂ ആയതിനാല് അവർ ഗെയ്ഡുകളും നല്ല രീതിയില് തന്നെ അവരോട് പെരുമാറണം അങ്ങനെ പെരുമാറുന്ന ഗെയ്ഡുകള്ക്ക് മുന്നേറാൻ സാധിക്കയൂള്ളൂ